സാങ്കേതികവിദ്യയിലെ പുരോഗതി ഇന്ന് മനുഷ്യ ജീവിതത്തില് ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ദൂരവും സമയവും കുറയ്ക്കുന്നതിനും ഈ സാങ്കേതികവിദ്യ മനുഷ്യൻ്റെ ജീവിത്തിലൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ബാങ്കിങ് നെറ്റ് ബാങ്കിങ്ങൊക്കെ വന്നതോടുക്കൂടി ഒര് സ്മാർട്ട് ഫോണ് കയ്യിലുണ്ട് എങ്കിൽ പണ്ട് നമ്മള് പൈസ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും ഒക്കെ ബാങ്കില് പോയിട്ട് ക്യൂ നിൽക്കേണ്ടുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു എന്നാലിന്നത് വേണ്ട എല്ലാം നമുക്ക് ഫോണിലൂടെ ഇരുപത്തിന്നാല് മണിക്കൂറും ബാങ്കിങ്ങ് ടൈമിന് മാത്രമെ കാര്യങ്ങൾ നടന്നിരുന്നുള്ളുയെങ്കിലും ഇരുപതിനാല് മണിക്കൂറിലും ഫണ്ട് ട്രാൻസാക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മറ്റ് നമ്മുടെ ജീവിത്തില് വരുന്ന മറ്റ് ബില്ലുകളും മറ്റും ഒക്കെ പേ ചെയ്യുന്നതിനും മറ്റും കെ എസ് ഇ ബി ബില്ലായാലും മറ്റെല്ലാ ബില്ലുകളും പേ ചെയ്യുന്നതിനും സഹായകമായിട്ടുണ്ട് അതുപോലെ ട്രാവലിംഗ് ആൻഡ് ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ട്രാവലിംഗ് ആൻഡ് ടൂറിസം രംഗത്തിപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെക്കുറിച്ച് അതേപോലെ തന്നെ പിന്നേ അവിടെ താമസിക്കാനുള്ള സൗകര്യത്തെക്കുറിച്ചും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല ഹോട്ടലുകളും ഒക്കെ അതിനെ ഒക്കെ കുറിച്ചൊക്കെ ഉള്ള എല്ലാ വിവരങ്ങളും നമുക്കൊരു സ്മാർട്ട് ഫോണിലൂടെ ലഭ്യമാവുകയും അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനും കഴിയുന്നുണ്ട്